ഇപ്പോഴിവിടെ കേരളത്തില് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങള് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ നല്ല രീതീല് മാറീട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഹൈ ഹൈടെക്കായിട്ടുള്ള റൂമുകളും കാര്യങ്ങളും ക്കെ ആയിട്ട് മാറീട്ടുണ്ട് നമ്മക്കിപ്പോൾ അധികം ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ എല്ലാം പ്രൊജക്ടർ വഴിയൊക്കെയാണ് ഓരോ ക്ലാസുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ വിദ്യാർഥികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള സാധ്യതകളൊക്കെ നല്ല രീതീല് വരുന്നുണ്ട് ഇപ്പോൾ നമ്മടെ ഗവൺമെൻ്റ് സ്കൂളുകളിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവുമായിട്ട് സെപ്പറേറ്റായിട്ട് പഠിപ്പിക്കുന്നൊക്കെയുണ്ട് നമുക്ക് പിള്ളേർക്ക് ഏതാണോ ഇംഗ്ലീഷ് മീഡിയം ആണോ താല്പര്യമെങ്കില് അതിനകത്ത് പോയിട്ട് ചേരാവുന്ന ഒരു കാര്യാണ് അപ്പോൾ നമുക്ക് ഏതാണോ താല്പര്യം അതിനകത്ത് പോയിട്ട് ചെയ്യുവാണേൽ കുറച്ചും കൂടി അവർക്ക് നല്ല രീതീല് പഠനത്തിലേക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് വായിക്കാനൊക്കെയുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ നമ്മടെ കോ സ്കൂളില്ക്കെ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് പ്പോ നമ്മളെ ലൈബ്രറികള് ലൈബ്രറിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നല്ല രീതിയിലുള്ള ലൈ ലൈബ്രറികളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പത്തെ സർക്കാരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്